ഈ പ്രമേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അത്യാവശ്യം പ്രായമായി വരുന്നവർക്കും എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ് അതിൽ ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഇംഗ്ലീഷ് മരുന്നായിരുന്നു ഫസ്റ്റ് പണ്ട് യൂസ് ചെയ്തോണ്ടിരുന്നത് ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഓരോ ഇപ്പം എന്താ പറയാ നാട്ടുകളിൽ തന്നെ ഉള്ള ഓരോ ചെടികളും അതിൻ്റെ വേരിൻ്റെ ഔഷധം അങ്ങനുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് മരുന്നായിട്ട് ഇവർ പറിച്ച് അത് അരച്ച് അതിൻ്റെ നീരാണ് ഇവർ കുടിച്ചോണ്ടിരിക്കുന്നത് അപ്പം പല തരത്തിലുള്ള ചെടികളുണ്ട് അല്ലെങ്കിൽ ചെടികളുടെ വേര് അങ്ങനുള്ള കാര്യങ്ങൾ പറച്ച് അത് കഴുകി അത് ഉണക്കി ചിലപ്പോൾ പൊടിച്ച് പാലിൽ അങ്ങനെ ഓരോന്നിലും കലക്കി കുടിക്കുന്നുണ്ട് പിന്നെ വേര് പറിച്ച് ചതച്ച് അതിൻ്റെ നീര് ഒഴിച്ച് നീരെടുത്ത് അത് കഴിക്കുന്നവരുണ്ട് പണ്ട് കാലത്തെന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല ഇംഗ്ലീഷ് മരുന്നായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത് അത് കഴിക്കുമ്പം അവർക്ക് വേറെ പല തരത്തിലുള്ള കിഡ്നി അങ്ങനുള്ള ഓരോ കാര്യങ്ങൾക്ക് എഫക്ട് ചെയ്യും ഉദാഹരണം ഇപ്പം അതൊക്കെ എന്തേലും അടിച്ചു പോകാനുള്ള സാധ്യതകളും അതിന് വേറെ അസുഖം വരാൻ ഉള്ള കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ഇപ്പം കൂടുതലും നാട്ടു വൈദ്യങ്ങൾ ഐ മീൻ നാട്ടിൽ കുറെ വൈദ്യന്മാർ ഉണ്ടാകും അവരെ ആണിപ്പം കൂടുതലും ഇവർ ഇതിന് വേണ്ടിയിട്ട് ഈ അസുഖം വരുമ്പം പോക്കൊണ്ടിരിക്കുന്നത് അതാകുമ്പം സൈഡ് എഫക്റ്റായിട്ടൊന്നും ഉണ്ടാവില്ല വേറെ അസുഖങ്ങൾ വരില്ല ഇപ്പം ഉദാഹരണം എന്ന് പറയുമ്പം ഇതിൽ നിന്ന് പറയുമ്പം നമ്മൾ ഈ ഭൂമി തന്നെ ഉണ്ടാവുന്നത് അല്ലേ ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുമ്പോൾ അവർ ഓരോ കെമിക്കല് സാധനങ്ങൾ ഒക്കെ ചേർത്തുണ്ടാക്കുന്നത് ആണ് ഇത് ഇവർ തന്നെ കൊൺ കണ്ടെത്തി ഇവർ പറിച്ച് അത് അരച്ച് ഇവർ തന്നെ സ്വയം കയ്യിലൂടെ കുടിക്കുന്നു രാവിലെ ഒരു നേരം അങ്ങനെയൊക്കെ ആയിരിക്കും അത് ഓരോ അതിനെ പറ്റി ഓരോ ഫുഡൊന്നും ഒക്കെ ഉണ്ടാവും ഐ മീൻ ഫുഡിൻ്റെ ഓരോ ക്രമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി കണ്ടൊക്കെയാണ് ഇവർ ഇത് കഴിക്കുക അപ്പം അതിനുള്ള ബലം എന്തായാലും ഉണ്ടാവും ഇപ്പം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ മാറാത്തത് ചിലപ്പം ഈ നാട്ടു വൈദ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ മാറും പല തരത്തിലുള്ള മരുന്നുകളുണ്ട് അതിപ്പം ഓരോ രീതിക്ക് കഴിക്കേണ്ടതും അങ്ങനെ ഓരോരോ ഇതായിട്ടാണ് ഓരോത്തരുടെ ഇതിലും ഓരോ മരുന്നായിരിക്കും ഔഷധങ്ങളും അതിൻ്റെ വേര് ഇലകൾ ചിലത് ചിലപ്പം ഇലകൾ ഉണക്കി അത് പൊടിച്ച് ചിലപ്പം തേന് പാല് അങ്ങനെ ഉള്ള ഓരോന്നിലും കലക്കി കുടിക്കുക അങ്ങനെ ഓരോരോ രീതികളിലാണ് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ നേരിടുന്ന ഓരോ മരുന്നുകൾ എന്ന് പറയുന്നത്